ഹലോ ഇത് ഡോക്ടറല്ലായിരുന്നോ ആ ഞാൻ പല്ല് വേദനയായിട്ട് ഞാൻ വിഷ്ണുവാണ് സംസാരിക്കുന്നത് ആ പല്ല് വേദനയായിട്ടായിരുന്നു വിളിച്ചിരുന്നത് ആ അത് മോണക്കായിരുന്നു ആ ഏറ്റവും അണപ്പല്ല് അണപ്പല്ലിന് ആ ചെറുതായിട്ടുണ്ട് ഓട്ട ആ ആ നേരത്തെ കഴിക്കാറുണ്ടായിരുന്നു

ആ പുറത്ത് പോകുമ്പം സ്വീറ്റ്സാ കഴിക്കുന്നത് ഇല്ല കാണിച്ചിട്ടില്ലായിരുന്നു ഇല്ല ഞാൻ കാണിച്ചില്ലായിരുന്നു ആ ചെറുതായിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് വേദനയുണ്ട് ആ എന്തേലും ചവക്കുമ്പോൾ ഒക്കെ ആയിരിക്കും വേദന ഒരു സൈഡിൽ മാത്രമേയുള്ളു

ആ അത്യാവശ്യം ഫുഡ് കഴിക്കുന്നതൊക്കെ അതിന്റെ അകത്ത് കയറിയിരിക്കുന്നുണ്ട് പിന്നെ തോണ്ടി കളയേണ്ട അവസ്ഥയാണ് ആ ആ അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ അല്ല അല്ലാണ്ട് വേറെ റൂട്ട് കനാലങ്ങനെ എന്തേലും ഒക്കെ ചെയ്യാൻ പറ്റുമോ ആ

ആ ആ ആ ആ മറ്റന്നാൾ ഒന്ന് ആ ആ ആ ഡോക്ടർ എപ്പോഴാണ് ഉണ്ടാവുക വൈകുന്നേരം നാല് മണി തൊട്ട് ആ ആ എവിടെയാണ് ഹോസ്പിറ്റല് ആ ഈ നമ്പറീൽ തന്നെ വിളിക്കണ്ടേ

ആ ഓക്കേ ആ

ആ ചൂട് വെള്ളത്തിലല്ലേ ഉപ്പ് വെള്ളം ഇതാക്കേണ്ടത് ആ ആ ആ ആ ഓക്കേ ആ ഞാൻ വിളിക്കാം വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് ഫ്രീ ഉള്ള സമയം നോക്കിയിട്ട് ഞാൻ ഇറങ്ങാം വൈകുന്നേരം ആ